ഹലോ ആ ആ വരൂ വരൂ എന്താവോ എന്താവശ്യം ആയിക്കോട്ടെ വന്നോളു നല്ലത് നോക്കി സെലക്ട് ചെയ്യാം നമ്മുടെ കയ്യിൽ എല്ലാം ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് എൽ ജി യുണ്ട് സാംസങ്ങുണ്ട് പി എസൊണ്ട് ഏതെല്ലാം മേഡത്തിന് സാ താല്പര്യപ്പെടുന്നത് വെച്ചാൽ അത് എടുക്കാം ഇപ്പോഴൊക്കെ ഓഫറുള്ള സമയമാണ് അതിപ്പോൾ അതിന് ആ ആ ആ അതിപ്പോൾ ഒ റ്റൊൻന്റി പെർസെൻറ് ഓഫറുണ്ട് ഒ ഓഫുണ്ട് അതിൻ്റെ വിലയുടെ അത് നിങ്ങൾക്ക് നല്ല കളറാണ് ഗ്യാരന്റിയുണ്ട് വാറന്റി ഉണ്ട് എല്ലാം വീട്ടില് വന്ന് ഞങ്ങള് ഫിറ്റ് ചെയ്ത് തരും വേറൊന്നും കാര്യമൊന്നുമില്ല പന്ത്രണ്ട് മാസം വാറന്റി പീരിയഡുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കതിനെ എന്താ പറയുക വർക്ക് ചെയ്തരുന്നുള്ള സ്പെയർ പാർട്സിൻ്റെ സാധനം പൈ പൈസ മാത്രം കൊടുത്താൽ മതി തൊണ്ണൂറ് ശതമാനം ഇപ്പോൾ കംപ്ളേയിന്റൊന്നും വരില്ല പിന്നെ ഫ്രക്ചുവേഷൻ ക കറന്റ് ഫ്ളക്ച്വേഷൻ അതിന്റെ ഉള്ളില് ഇൻബിൽറ്റാണ് സ്റ്റാബുലൈസറ് അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നവും സംഭവിക്കില്ല എല്ലാ ഇപ്പം മൂവ്മെന്റുള്ള പുതിയ മോഡല് വന്നിട്ടുണ്ട് ആ പുതിയ മോഡല് എടുത്താൽ നന്നായിരിക്കും പിന്നേ ഫ്രിഡ്ജ് പറഞ്ഞോ ഫ്രിഡ്ജേ ഏത് ഏത് മോഡലാണ് വേണ്ടത് എത്ര ലിറ്ററിൻ്റെയാണ് വേണ്ടതെന്ന് നോക്കി ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്താ പറയുക ഞങ്ങൾ എൽ ജി യുടെ നേരിട്ടുള്ള ഏജന്റാണ് ഏജൻസിയാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മേക്സിമം രണ്ടു ദിവസത്തെ റേറ്റില് ഞങ്ങൾക്ക് തരാൻ കഴിയും നിങ്ങള് ദാ ഇരിക്കുന്ന ദേ ആ അപ്പുറത്തെ റൂമിലേക്ക് നോക്കിക്കോളു അവിടെ ചെന്ന് അവിടെ റൂമിലുണ്ടെല്ലാം ഫ്രിഡ്ജിൻ്റെതായ ലോകം മുഴുവനാണ് ഫ്രിഡ്ജ് ഫീസറ് അതൊക്കെയവിടെയുണ്ട് അത് മാത്രമാണുള്ളത് അതില് നിങ്ങൾക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്തോളു ഏത് കളറാണ് വേണ്ടത് ബ്രൗണുണ്ട് വൈറ്റുണ്ട് ബ്ലൂ ഉണ്ട് പല കളറുണ്ട് അതുപോല തന്നെ മെ മെർക്കുറി ലൈറ്റ് ഇതിൻറെയുണ്ട് പല തരത്തിലുണ്ട് പുതിയ പുതിയ മോഡലാണ് എല്ലാറ്റിനും ഒക്കെ ഫ്രോ മറ്റേ ഫ്രീസറ് അല്ല ഫ്രോസൺ അടക്കം ചേർത്ത് അടിപൊളി സാധനം ആണിപ്പോൾ വരുന്നത് യാതൊരു കംപ്ളേയിന്റും വരില്ല ഒയ്യോളം നോക്കീട്ട് സെലക്ട് ചെയ്തോളാം നമുക്ക് ഏതാ വേണ്ടത് ചെയ്യാം എന്നിട്ടതിന് ഒതുകുന്ന ഇതും അതുപോലെ തന്നെ ഇത് ഇരുപത്തിനാല് മണിക്കൂർ റ്റൊൻന്റി ഫോർ മന്ത്സ്

അത് നമുക്ക് വാറന്റി ഉണ്ട് ഒരു കൊല്ലം വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ ഫുള്ളി ഓട്ടോമാറ്റിക് വേണമെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക്കുണ്ട് സെമിയുണ്ട് ഏതാണെൽ സെലക്ട് ചെയ്യാം മാനുവല് ഒഴിച്ച് ബാക്കിയൊക്കെയുണ്ടിപ്പം ഇപ്പോൾ ഓട്ടോമാറ്റിക്കാണ് എല്ലാവരും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത് സൈഡുണ്ട് ഓപ്പണുണ്ട് സെന്ററുണ്ട് ഏതാ വേണമെങ്കിൽ എടുക്കാം ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ടോപ്പോപ്പണാണ് ഇപ്പോഴത്തെ ഫാഷൻ അതെടുക്കാം കുഴപ്പമൊന്നുമില്ല നല്ലതാണ് ഇതിനൊക്കെ ഗ്യാരന്റിയുണ്ട് എല്ലാറ്റിനും ഗ്യാരന്റിയുണ്ട് ഇപ്പ ദേ ഈ ഈ ആഴ്ചയില് നിങ്ങള് ഇതില് ഏത് സ എന്തെടുക്കുമ്പോഴും നിങ്ങൾക്കിരുപത് ശതമാനം ഓഫ് കിട്ടും ആ അത് മാത്രല്ല ഹോം ഡെലിവെറിയാണ് വീട്ടിലെത്തിക്കുകയും ചെയ്യും ഏ രണ്ട് ശതമാനം കൂടി കിട്ടും

റ്റൊൻന്റി എന്നത് റ്റൊന്റിറ്റു ആയി മാറും

അവര് ആ ക്യാഷ് ബുക്കിങ്ങ്സ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിള് ചെയ്യാം എങ്ങനെ വേണെൽ ആവാം ചെക്കെടുക്കില്ല ഓ ആയിക്കോട്ടെ അത് ഏതൊക്കെ മോഡലുകളാണ് നിങ്ങളെടുക്കുന്നത് അതിൻ്റെ പ്രൈസ് നോക്കി നമുക്ക് എസ്റ്റിമേറ്റ് ഇട്ടതിന് ശേഷമല്ലേ നമുക്ക് തീരുമാനിക്കാൻ പറ്റുകയുള്ളു അപ്പം മൊത്തം നിങ്ങൾക്ക് ഇഇ ഓഫറൊക്കെ ഏതൊക്കെയാണ് വരുന്നതെന്നുള്ള വാഷിംഗ് മെഷീൻ ഏതാണ് ടീവിയേതാണ് ഫ്രിഡ്ജേതാണ് ഒക്കെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ക കണ കണക്ക് കൂട്ടിയിട്ട് അതില് റ്റൊന്റി ടൂ പെർസെന്റ് നിങ്ങൾക്ക് റിഡക്ഷൻ കഴിച്ച് വരുന്ന എമൗണ്ട് നിങ്ങള് അടച്ചാൽ മതി ആ അതിന്റുള്ളിൽ ഒതുങ്ങും ഒതുങ്ങും അപ്പോൾ എന്തൊക്കെയായാലും എന്തൊക്കെയായാലും അതിന്റുള്ളിലൊതുങ്ങും ഓ യെസ് ആ നമുക്ക് സെലക്ട് ചെയ്തോളു സെലക്ട് ചെയ്തോളു ധൈര്യമായിട്ട് സെലക്ട് ചെയ്തോളു ഇനി ഉള്ളത് കുറച്ച് പൈസ കുറവുടെന്നു വെച്ച് കഴിഞ്ഞാൽ പോലും നിങ്ങള് നിങ്ങളുടെ ഡെലിവെറി കൊടുക്കുമ്പോൾ ഡെലിവെറി വണ്ടിയില് കൊടുത്ത് വി തിരിച്ച് കൊടുത്തു വിട്ടാൽ മതി പൈസ അ ആ കാര്യങ്ങളൊക്കെ ആത് ഞങ്ങള് ചെയ്യാം ബില്ലടക്കം ഞങ്ങളവിടെത്തി നിങ്ങളുടെ വീട്ടിലിറക്കുമ്പോൾ നിങ്ങള് പൈസ കൊടുത്താൽ മതി പിറ്റേന്ന് വരും തീർച്ചയായും നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷനോടുകൂടി മാത്രമേ ഞങ്ങളുടെ ആള്ക്കാര് സർവീസ് സെൻ്ററിൽ നിന്ന് ആള് വരും അവര് കാട്ടി തന്ന് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞ് മനസിലാക്കി തന്നതിന് ശേഷമേ നിങ്ങള് പൈസ കൊടുത്താൽ മതി ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ അത് ഫ്രീ സെൽ സെലക്ട് ചെയ്തെങ്കിൽ ബില്ലിട്ടോളാം ബില്ലിട്ടോളാം

ആ ഒരാഴ്ച്ച അര അരമണിക്കൂറിന്റുള്ളിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ടതിൻ്റെ ഏതൊക്കെയാണ് മോഡലെന്ന് മാത്രമൊന്ന് നിങ്ങള് പറഞ്ഞ് കൊടുത്താൽ മതി ബാക്കിയൊക്കെ ഓൾറെഡി പായ്ക്കഡാണ് അത് നമുക്ക് പൊളിച്ച് നോക്കണ്ട കാര്യമില്ല കമ്പനി ഗ്യാരന്റിയോടു കൂടി വരുന്ന സാധനമല്ലെ ഞങ്ങൾക്ക് അങ്ങനെ സാധനം എടുത്ത് വണ്ടിയില് വയ്ക്കുകയേ വേണ്ടൂ ആ ഓപ്പണിലിരിക്കുന്ന ഇതിലിരിക്കുന്ന എന്താ ഗ്യാലറിയിലിരിക്കുന്നത് മേഡം സെലക്ട് ചെയ്തോളു ആ സെലക്ട് ചെയ്ത അതിനെ നമ്പറ് നോക്കിയിട്ട് അതിൻ്റെ ഇതനുസരിച്ച് ഞങ്ങളത് ആ സാധനം എടുത്ത് നിങ്ങൾക്ക് വണ്ടിയിലോട്ട് തരാം കൈയോടെ വിട്ടുതരാം താങ്ക്യൂ യെസ് മേഡം താങ്ക്യൂ